ഞങ്ങള് കസിൻസ് എല്ലാവരും കൂടി പോയിട്ടൊരു ഫാമിലി പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ പോയപ്പോൽ ഞങ്ങൾ എല്ലാരും കൂടിപ്പോയി ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ഥലത്തിലാണ് പോയത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ആണ് പോയത് അപ്പോൾ അവിടെ പോയി എല്ലാവരും കൂടിപ്പോയി ഒരു ഡാം പോലത്തെ ഒരു സ്ഥലമാണ് അതിന് ചുറ്റിലും കാടും കാര്യങ്ങളും ഒക്കെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഫുൾ മൃഗങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കാടിനുള്ളിൽ ഡാം പോലത്തെ ഒരു സ്ഥലം ഫുൾ ചുറ്റിലും നല്ല പച്ചപ്പുള്ള പുൽ മൈതാനവും അതിന് തൊട്ട് ബേക്കിലായിട്ട് നല്ല കാടും ഇല്ലിമുളങ്ങളും ഒക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അത് ഇപ്പൊ ഉച്ച സമയത്താണേലും രാവിലെയാണേലും ഒക്കെ ഭയങ്കരമായി ക്ലൈമറ്റ് അനുസരിച്ച് മാറി മാറി മാറി ഓരോ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഞങ്ങൾ എല്ലാരും കൂടിപ്പോയി എല്ലാരും കൂടി നിന്ന് എടുത്തൊരു പിക്ക് ഉണ്ട് അപ്പൊ അന്ന് ഞങ്ങൾ ഒരു ക്യാമറ വെച്ചിട്ടാണ് പിക്ക് എടുത്തിരുന്നത് അപ്പോൾ അത് എടുത്ത സമയത്ത് എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റിംഗും കാര്യങ്ങളുമൊക്കെ മോർണിംഗ് ആയിരുന്നു ആ സമയത്തെ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പിക്കായിട്ടാണ് അത് കിട്ടിയത് പിന്നെ എല്ലാവരും ഉള്ളൊരു പിക്ക് ആയത് കൊണ്ട് തന്നെ അത് ഭയങ്കര മെമ്മറബിൾ പിക്ക് ആയിരുന്നു എല്ലാവര്ക്കും ഭയങ്കര ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പിക്ക് ആണ് കാരണം എല്ലാവരുടെയും ഒരു ഹാപ്പിമൊമൻ്റെ എന്ന് പറയുന്ന ഒരു സാധനം ക്യാപ്ചർ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു പിക്കാണ് എല്ലാരും കൂടി ഒത്തുകൂടിയ സമയത്ത് കിട്ടിയ ഒരു അടിപൊളി മൊമെൻ്റെ തന്നെയായിരുന്നു പിന്നെ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഡിപെൻഡബിൾ ആയതുകൊണ്ടും ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും ആ പിക്ക് വളരെ ഇതായിരുന്നു പിന്നെ എല്ലാവരുടെയും സന്തോഷം ആ പിക്കിൻ്റെ ഉള്ളിൽ തന്നെ കാണാനുണ്ടായിരുന്നു എല്ലാരുടെയും ഫേസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു